ഹലോ ആ വിങ്സ് ഹോസ്പിറ്റലിലേ നേഴ്സ് അല്ലേ എൻ്റെ പേര് അളകനന്ദ ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നേ അളകനന്ദ ആ ആ വയസ്സ് മുപ്പത്തിരണ്ട്

ഓ

ആ ഓക്കെ ആ കേൾക്കാം കേൾക്കാം ആ എൻ്റെ അമ്മയ്ക്കുണ്ടായിരുന്നു പക്ഷേ ഇത്രയും ഇല്ലായിരുന്നു പക്ഷേ കുറച്ച് താമസിച്ചിട്ടായിരുന്നു ഇല്ലില്ല കൊളസ്ട്രോളെ ഉള്ളൂ പിന്നെ ബി പി ഉണ്ട് ഷുഗർ ഇല്ല

അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് എൻ്റെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നൊരു ലിസ്റ്റ് പറയുമോ

ആ ഓക്കെ ആ ഓക്കേ അപ്പം ഞാനിപ്പം ഈ എനിക്കിപ്പം മെഡിസിൻ ഇപ്പം പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലേ ഓക്കെ അപ്പം ഞാൻ ഇനി ഒരുമാസം കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യാം മതി അല്ലേ ആ അത് കുഴപ്പമില്ല ആ പക്ഷേ ഈ ബാക്ക് ഒക്കെ തടി കൂടുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് കൊളസ്ട്രോളിൻ്റെ ആയിരിക്കും അല്ലേ

ആ ഓക്കെ ഓക്കെ താങ്ക് യൂ ആ ശരി